ഇന്ത്യയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഇപ്പം ഓരോ ഭക്ഷണരീതികളാണ് ഉണ്ടാവുന്നത് ദൈനംദിന ജീവിതത്തിൽ പിന്നെ നമുക്ക് കൂടുതലും അതായത് കേരളത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ കേരളീയർക്ക് ചോറെന്ന് പറയുന്ന സംഭവം ഇല്ലാതെ പറ്റില്ല മെയിൻ ആയിട്ടും ഒന്നുമില്ലെങ്കിലും രണ്ടുനേരം ചോറ് അല്ലെങ്കിൽ മെ എന്തായാലും എങ്ങനെ പോയാലും ഒരുനേരം ചോറ് നിർബന്ധമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ വിഭവങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കാര്യങ്ങൾ അതായത് നോൺവെജ് ഐറ്റംസാണ് കൂടുതലും ആൾക്കാർക്ക് കഴിക്കാനൊക്കെ താല്പര്യമുള്ളത് പിന്നെ പൊതുവെ ഹോട്ടൽ ഫുഡ്ഡുകളാണല്ലോ പൊതുവെ എല്ലാവർക്കും താല്പര്യം ഇപ്പം നമ്മളെന്തൊക്കെ വീട്ടിൽ ഉണ്ടാക്കീട്ടുണ്ടെങ്കിലും പുറത്തു പോയി കഴിക്കാനാണ് കൂടുതലും ആൾക്കാർക്ക് താല്പര്യമുള്ളത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകളെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനപ്രിയം വിഭവങ്ങൾ ഇതൊക്കെത്തന്നെ പക്ഷേ മസാലകൾ എന്തൊക്കെയാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളകുപൊടി ചിക്കൻ മസാല മീറ്റ് മസാല അച്ചാർ പൊടി രസം പൗഡറ് അങ്ങനെയുള്ള ഒരുപാട് മസാലകളുമുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ